ആ അതെ ആരാണ് ആ ഓക്കെ പേരെന്താണ് അളകനന്ദ ഒരു മിനിറ്റേ ചെക്ക് ചെയ്യട്ടെ ആ ഓക്കെ അളകനന്ദ വയസ്സ് മുപ്പത്തിരണ്ട് ആ ഓക്കെ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതൽ ഉണ്ട് കേട്ടോ ചീത്ത കൊളസ്ട്രോളും ഉണ്ട് നല്ല കൊളസ്ട്രോളും ഉണ്ട് ചീത്ത കൊളസ്ട്രോൾ കുറച്ച് കൂടുതലാണ് അപ്പോൾ നല്ല വെള്ളം ഒക്കെ കുടിക്കുക നല്ല വെജിറ്റബിൾസ് ഒക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് കഴിക്കണം പിന്നെ ഇറച്ചി മീനും കാര്യം ഒക്കെ കുറച്ച് കുറയ്ക്കുക പിന്നെ ഈ വറുത്തതും പൊരിച്ചതും ആയുള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കേണ്ടി വരും അത് കഴിഞ്ഞ് നല്ല ചപ്പ് രാത്രിലത്തേക്കൊക്കെ ചപ്പാത്തിയൊക്കെ കഴിക്കുവാണ് നല്ലത് കേട്ടോ ഡയറ്റ് നന്നായിട്ട് നോക്കേണ്ടി വരും ഹലോ ആ പിന്നെ ആ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടോ ആ നിങ്ങൾക്ക് ഷുഗർ ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ആ ഓക്കെ അപ്പം ഈ ഉപ്പിൻ്റെ അളവൊക്കെ കുറച്ച് ഉപയോഗിക്കുക കുറച്ച് ആക്കി ഉപയോഗിക്കാവുള്ളൂ നമ്മൾ എല്ലാ ഭക്ഷണങ്ങളിലും കുറച്ച് ഒക്കെ കണ്ട്രോൾ ചെയ്ത് കഴിക്കണം എല്ലാ ഭക്ഷണങ്ങളും നല്ല രീതിയിൽ കഴിക്കണം കുറച്ച് കുറച്ചായിട്ട് മാത്രം കഴിക്കുക കൂടുതൽ കഴിക്കാതിരിക്കുക ആ നല്ലവണ്ണം വെജിറ്റബിൾസ് ക്യാരറ്റും ബി ഇല കറികൾ ഒക്കെ നന്നായിട്ട് കഴിക്കുക കാരറ്റ് ബീറ്റ്റൂട്ട് പിന്നെ ഈ ബ്ലഡ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി അനാർ ആപ്പിളും ഓറഞ്ചും മുന്തിരിയും ഒക്കെ നന്നായിട്ട് കഴിക്കുക നന്നായിട്ട് കഴുകി യൂസ് ചെയ്യണം പിന്നെ ഈ വറുത്തതും പൊരിച്ചതും എണ്ണ കടികളും പുറത്ത് നിന്ന് ഉള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കഴിക്കുക അത് ഒഴിവാക്കി ഒഴിവാക്കുന്നതാണ് നല്ലത് അത് കഴിഞ്ഞ് കൊളസ്ട്രോൾ ഒക്കെ ഒരു കണ്ട്രോൾ ആയി കഴിയുമ്പോൾ ചെറിയ രീതിയിൽ കഴിക്കാം നമുക്ക് കൊതിക്ക് മാത്രം കഴിക്കുക അല്ലാണ്ട് വയർ നിറച്ച് കഴിക്കാൻ ഉള്ള ഇത് ഉണ്ടാക്കരുത് ഇപ്പോൾ ഇത് കണ്ട്രോൾ ചെയ്തിട്ട് നോക്കുക ഒന്നുകൂടെ ഒരു മാസം വരെ നിങ്ങൾ കണ്ട്രോൾ ചെയ്തിട്ട് കൊളസ്ട്രോൾ കുറയുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താൽ മതിയാകും ആ അതെ അതെ അന്ന് വരുമ്പോൾ ഷുഗറും കൂടി ടെസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അത് ഭക്ഷണത്തിന് മുമ്പുള്ളതും ശേഷം ഉള്ളതും കൂടി ഫാസ്റ്റിംഗും ബി പി പി എസും ചെയ്തിട്ട് വരേണ്ടി വരും ആ കൊളസ്ട്രോളിന് തടി കൂടും അത് നമ്മൾ ഭക്ഷണം കണ്ട്രോൾ ചെയ്യുമ്പോഴും പിന്നെ നല്ല വ്യായാമം ചെയ്യുകയും ചെയ്യണം കേട്ടോ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നടക്കുക ഒക്കെ ചെയ്യുമ്പോൾ കൊളെസ്ട്രോളും കുറയും തടിയും കുറയും ഓക്കെ ശരി വെൽക്കം